ഹലോ മലബാർ റെസ്റ്റോറൻറ് അല്ലേ ഞാൻ അവിടെ നിന്നൊരു മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഇവിടെ മാനന്തവാടിയാണ് ഉള്ളത് ആ ഇവിടുത്തെ ഒരു രണ്ടാം നിലേന്റെ മുകളിലാണ് ഞാൻ ഉള്ളത് വീട് മറ്റേ ബിവറേജിൻ്റെ അവിടെ നിന്ന് താഴോട്ടുള്ളൊരു വഴിയാണ് ആ അതേ അതേ അതേ അതേ അവിടെ നിന്ന് റൈറ്റ് ആ നിങ്ങൾ ഇപ്പോൾ വരുമോ ആ വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വേഗം വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ നിങ്ങൾ പനപുരത്ത് എത്തിയോ ആ ഓക്കെ എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് വേഗം ഒന്ന് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കായിരുന്നു ആ ഓക്കെ ആ ബീവറേജിൻ്റെ അവിടെ നിന്ന് നേരെ താഴോട്ടുള്ള ഒരു വഴി ആ താഴോട്ട് വന്നാൽ മതി താഴോട്ട് വന്നിട്ട് അവിടെനിന്ന് രണ്ടാമത്തെ ഒരു നിലയുണ്ട് അടിയിലത്തെ നില അല്ല താഴത്തെ